ആ ഹലോ സ്വീറ്റ്സ് സ്വീറ്റ്സ് സ്റ്റാളല്ലേ സ്വീറ്റ്സ് സ്റ്റാളല്ലേ ആ ആ നമസ്കാരം ഞാൻ വിളിച്ചത് നമ്മൾ കുറച്ച് സ്വീറ്റ്സ് വേണമായിരുന്നു നിങ്ങളെ കടെന്ന് അപ്പോൾ നമ്മൾ വീട്ടിലൊരു പൂജ നടക്കുന്നുണ്ട് അപ്പോൾ പൂജയ്ക്ക് വേണ്ടീട്ടാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അവർക്ക് വിതരണം ചെയ്യാൻ കുറച്ച് ലഡു വേണമായിരുന്നു ഒരു ഇരുന്നൂറ്റൻപത് ലഡു വേണമായിരുന്നു അപ്പോൾ അതെങ്ങനെയാണ് റേയ്റ്റ് നിങ്ങൾ എണ്ണത്തിന് കൊടുക്കുന്നതാണോ അതോ കിലോയ്ക്കാണോ കൊടുക്കുന്നത് നൂറ്റൻപത് രൂപാല്ലേ അപ്പം ഞങ്ങൾക്ക് എങ്ങനെ ഞങ്ങൾ ഇത് ഓർഡറ് തരുന്ന സാധനം നിങ്ങൾ പിന്നെ അത് പാക്ക് ചെയ്തിട്ട് നല്ല വൃത്തിയിൽ വീട്ടിൽ എത്തിക്കാൻ സാധിക്കോ നിങ്ങൾക്ക് അതെ അതെ വീട്ടിൽ പൂജയാന്ന് കാരണം ഫ്രഷായിരിക്കണം അത് ഉണ്ടാക്കുന്ന ആളും നല്ല ഇത് നല്ല ശുദ്ധീലായിരിക്കണം അത് ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട പൂജയാണ് ആ അപ്പോൾ ആ അതന്നെ അപ്പം നമ്മൾ പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ എത്തിക്കല്ലോല്ലേ ആ സമയത്ത് ആ ആ ആ ആ ഓക്കേ ഞങ്ങൾ പിന്നെ ഓൺലൈനായിട്ട് ഞങ്ങൾ ഇതാക്കാം അയക്കാം ഞങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങൾ നമ്മളയക്കാം ഞങ്ങൾക്കിത് മറ്റന്നാളേക്കാണ് വേണ്ടത് ഈവനിംഗിലാണ് ഫംഗ്ഷൻ നടക്കുന്നത് അപ്പോൾ പ്രത്യേക പൂജയാണ് അതുകൊണ്ട് അതിലേക്ക് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് പുറത്തുന്നുള്ള പൂജാരിമാരൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനുള്ള ഈ സ്വീറ്റ്സാണ് ഇത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ അത് ഇത് പാക്ക് ചെയ്തിട്ട് കൊടുത്തയക്കണം

ആ ഓക്കേ ഓക്കേ താങ്ക് യൂ അപ്പോൾ ഞാൻ ബാക്കി എല്ലാം അയക്കാട്ടാ ഓക്കേ ഓക്കേ